തോട്ടത്തിലൊരു ചെടി പുഷ്പിക്കുമ്പോഴോ അല്ലെങ്കിലൊരു മരങ്ങൾ ഫലം കായ്ക്കുമ്പോൾ നമുക്ക് വളരെ അധികം സന്തോഷമാണ് കാരണം അതിന് പിന്നിലുള്ള അധ്വാനം അതാണ് നമ്മളെ സന്തോഷത്തിലേക്ക് എത്തിക്കുന്നത് നമ്മളൊരു ചെടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം അത് പൂക്കണം എന്നില്ല അത് വളർന്ന് അതിൻ്റെ ഫലം കായ്ക്കാൻ സമായമാകുന്നത് വരെ നമ്മളതിന് വെള്ളവും വളവും ഒക്കെ തണലും ഒക്കെ നൽകി അതിനെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് ആ കാലയളവിൽ നമ്മൾക്ക് ഒരു സന്തോഷം കണ്ടെത്തുന്നത് അതിൻ്റെ പൂക്കൾ വിടരുമ്പോഴാണ് നമ്മൾ വളർത്തിയ ചെടിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ വളർത്തിയ മരത്തിൽ നിന്നും ലഭിക്കുന്ന ഫലം അത് നമുക്ക് വളരെ ഭംഗിയുള്ളതും വളരെയധികം സന്തോഷം തരുന്നതും വളരെ രുചിയേറിയതുമാണ് അത് അതിൻ്റെ അനുഭവം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം വളരെ സന്തോഷമുള്ളതാണ് അത് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചിട്ടുള്ളതാണ് അതിന് ഇനിയും അങ്ങനെ ആ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു